പഴയ ഗാനങ്ങൾ നല്ല അടിപൊളിയായിട്ട് കേക്കാം ഒരു പീസ്ഫുൾ മൈൻ്റിലൂടെ നമുക്ക് വേണമെങ്കിൽ പഴയ പാട്ടുകൾ ഒക്കെ കേൾക്കാം ഇപ്പോഴത്തെ പാട്ടുകൾ ഫുൾ അടിച്ചുപൊളി പാട്ടുകളായതുകൊണ്ട് തന്നെ ഒരു സങ്കടം വരുമ്പോൾ ഒന്നും ഈ അടിച്ചുപൊളി പാട്ടൊന്നും പാടാൻ പാടാനോ അല്ലെങ്കിൽ കേൾക്കാനോ ഇഷ്ടപ്പെട്ടെന്നു വരില്ല പിന്നെ പണ്ടത്തെ പാട്ടുകൾ നല്ല അർത്ഥവത്തായ വരികളും അങ്ങനെ ഒക്കെ ആയിരുന്നു ഇപ്പോഴത്തെ പിന്നെ നാലും മൂന്നും ഏഴ് ഗാനങ്ങൾ ഒക്കെ എന്നു വച്ചാൽ ചില ഗാനങ്ങളെ എല്ലാത്തിനേയും ഞാൻ പറയുന്നില്ല ചില ഗാനങ്ങൾ വളരെ മോശമാണ് മോശം രീതിക്കൊക്കെ ആണ് പിന്നെ ചിലത് അടിപൊളിയാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇപ്പോഴത്തെ പുതിയ പുതിയ ഇറങ്ങുന്ന പാട്ടുകൾ ആണ് പണ്ടത്തെ പാട്ടുകാർ അങ്ങനെ അധികം അങ്ങനെ കേൾക്കാറൊന്നുമില്ലെന്ന് തോന്നുന്നു എന്നാലും എനിക്ക് ഇഷ്ടം പണ്ടത്തെ പാട്ടുകളെയാണ്